ഹലോ ഇത് കോഴിക്കോടുള്ള നിയോ റെസ്റ്റോറന്റ് അല്ലായിരുന്നോ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപേ നി താങ്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുഡ് ഡെലിവറീൻ്റെ ഹോം ഡെലിവറീൻ്റെ കേസ് പറയാനായിരുന്നു ഇത് ഒന്ന് ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഒരു അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടൊരു പ്രോബ്ളം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു ഫാമിലിയിൽ ഒരു ചെറിയ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വരെ ഒന്ന് പോകണം എനിക്ക് അത്യാവശ്യമായത് കൊണ്ട് കുറച്ച് ലോങ്ങ് ആയതു കൊണ്ട് ഫുഡ് വരാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് അർജന്റായിട്ട് ഇപ്പം വന്ന കേസാണ് അപ്പം അതിനൊന്ന് പോകേണ്ടതായിരുന്നു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം നിങ്ങൾ ഇത് വരാനെന്തെങ്കിലും കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് ആയിരുന്നു പറഞ്ഞത് ഞാൻ ഇപ്പം പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വണ്ടി എടുത്തിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഫുഡ് ഓർഡർ ചെയ്തതിൻ്റെ കാര്യം ഓർത്തത് അപ്പം നിങ്ങളെയൊന്ന് വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞ് ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഇതൊന്ന് പറഞ്ഞ് കൺഫോം ആക്കിയിട്ട് ഈ ഫുഡ് എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അപ്പോൾ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വണ്ടി എടുത്തിങ്ങനെ സ്റ്റാർട്ടാക്കി നിൽക്കുകയാണ് ആ ഫുഡ് ഒന്ന് ഇത്രയും ഇങ്ങനെയൊരു അർജന്റ് കേസ് ഉള്ളത് കൊണ്ട് ഒന്ന് ക്യാൻസൽ ആകുമോ ആ ഓക്കെ ഓക്കെ